ആറ് എട്ട് രണ്ടായിരത്തി അഞ്ച് മൂന്ന് നാല് രണ്ടായിരത്തി മൂന്ന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത് പതിനാല് അഞ്ച് രണ്ടായിരത്തി നാല് ആറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്